കൂടുതൽ ദിവസം പുറത്ത് പോകുമ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ദിവസം പോകുക ആണെങ്കിൽ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരെ എൽപ്പിക്കും ജസ്റ്റ് ഒന്ന് വന്ന് നനച്ച് കൊടുക്കണം എന്നു പറയും അവരില്ലാത്ത പക്ഷം ആണെങ്കിൽ നമ്മൾ എന്തുചെയ്യും വെള്ളം വെള്ളത്തിൽ നിന്നും അതായത് മഴയത്ത് നിന്നും വെയിലത്ത് നിന്നും ഒക്കെ മാറ്റി വെക്കും മഴയും വെയിലും ഒക്കെ തട്ടുന്ന രീതിയിൽ വെക്കും ചെടികൾ പിന്നെ വളം ഒക്കെ നന്നായി ഇട്ടുകൊടുക്കും മുട്ട തോടൊക്കെ പൊട്ടിച്ച് കുറച്ച് ദിവസം വെള്ളമൊന്നും ഇട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആദ്യ പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്പെ മണ്ണൊക്കെ മാന്തി നന്നായിട്ട് വളമൊക്കെ മിക്സ് ചെയ്തു കൊടുക്കും പിന്നെ പറഞ്ഞ പോലെ മഴയും വെയിലും അധികമായി കൊള്ളാത്ത വിധം ഷീറ്റ് കെട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി വെക്കുകയോ ചെയ്യും പ്രധാനം ആയിട്ടും നമ്മൾ പിന്നെ പരിപാലിക്കാൻ വേണ്ടിട്ട് നമ്മൾ തൊട്ട് അയൽപക്കക്കാരോ കുടുംബക്കാരോടൊ ഒക്കെ പറയും ജസ്റ്റ് ഒന്ന് വന്ന് നനച്ചിടണെ ഒന്ന് നോക്കണേ അങ്ങനെ ഒക്കെ പറയും അങ്ങനെ ആണ് ചെയ്യാറ്